പരമ്പരാഗത രൂപമായ പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതാനാണ് കൂടുതൽ ഇഷ്ടം ലാപ്ടോപ് മൊബൈല് ചെയ്യാൻ ടൈപ്പ് ചെയ്യാൻ അത്ര വലിയ താല്പര്യമില്ല എന്ന് വച്ചിട്ട് നമ്മൾ അത് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു മെസ്സേജ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പോൾ പേനയും പേപ്പറുമായി മാത്രം ഉപയോഗിച്ചേ എഴുതുകയുള്ളൂ അങ്ങനെ നിർബന്ധമില്ല പക്ഷെ ഇഷ്ടം കൂടുതൽ അതിനോടാണ് അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഇല്ലൻ്റിൽ ഒരു എഴുത്തിക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലൻ്റിൽ ഇല്ലൻ്റ് വാങ്ങിച്ച് എഴുതി കൊണ്ടൊന്നും അങ്ങനെ അയക്കുന്നില്ലലോ ഇപ്പോഴത്തെ നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നു ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പോൾ മൊബൈല് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ കൂടിയും പേപ്പറും പേനയും അതാണ് കൂടുതൽ ഇഷ്ടം അവിടെ നമുക്ക് അതിൽ കൂടുതൽ ഇൻറ്റിമസി വരാണ് നമ്മൾ നമുക്ക് ആലോജിച്ച് ഇങ്ങനെ എഴുതി എഴുതി ഒരു പ്രത്യേക ഒരു ഇതിലാണ് നമ്മൾ അത് എഴുതുന്നത് ഇപ്പം ഈ ഫോണും ഇതൊക്കെ അവൈലബിൾ ആയത് കൊണ്ട് തന്നെ ഇൻറ്റർനെറ്റും സൗകര്യങ്ങളുമൊക്കെ വന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എത്ര അകലെ ഇരിക്കുന്ന ആൾക്കാരോടായാലും നമുക്ക് സംസാരിക്കാം നേരിട്ട് കണ്ടു സംസാരിക്കാം അതൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ആ പേനയും പേപ്പറും വച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഇരുന്ന് പണ്ടത്തെ കവികളും അവരൊക്കെ നമ്മളെ എം ടി വാസുദേവൻ നായരും ഒ എൻ വി കുറുപ്പുമൊക്കെ എഴുതുന്നത് കണ്ട് ഇങ്ങനെ ആ ഒരു ഓർമ്മ വരുകയാണ് അപ്പോൾ അത്കൊണ്ട് തന്നെ പേനയും പേപ്പറും ഉപയോഗിച്ചുള്ള എഴുത്തിനോട് തന്നെയാണ് താല്പര്യം എഴുത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് അ ഇപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ അധികം നമ്മൾ ലൈബ്രററിയിൽ പോയി പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ കൂടി നമുക്ക് പുസ്തകങ്ങൾ ലഭ്യമാണ് ഓഡിയോ ആയിട്ടും ഇതൊക്കെയായിട്ടും നമുക്ക് ലഭ്യമാണ് നമുക്ക് വായിക്കാൻ ഒരു ചെവിയിൽ മറ്റേ ഇതൊക്കെ വച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കേൾക്കാം കഥകൾ നമക്ക് വായിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നതിൻ്റൊപ്പം ഈ നോവൽസ് വേണമെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും ഓഡിയോ റീഡിങ് ഇതിൽ കൂടി നമുക്ക് വായിക്കാൻ പറ്റും അപ്പം ആ എഴുത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ പലരും ഈ അപ്പം നൂതന ടെക്നോളജിയിലേക്കുള്ള എഴുത്തിലേക്കൊക്കെ മാറി കൊണ്ടിരിക്കുന്നു ആ എഴുത്ത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് പഴയത് തന്നെയാണ് നമുക്ക് ഇഷ്ടം പഴയ പാട്ട്കളോട് ഇഷ്ടമാണ് പഴയ എഴുത്തുകളോട് ഇഷ്ടമാാണ് ഇപ്പോഴത്തെ എഴുത്തുകാരെ വില കുറച്ച് കാണുകയല്ല എല്ലാവരും ഇപ്പോൾ കെ ആർ മീര അവരൊക്ക നല്ല നല്ല എഴുത്തുകാർ തന്നെയാണ് ബെന്യാമിൻ ഇവരൊക്കെ നല്ല എഴുത്തുകാർ തന്നെയാണ് പക്ഷെ എങ്കിൽ കൂടിയും അവർ ഇതിലാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞമാതിരി അവർ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിച്ചൊന്നുമല്ല കേട്ടോ അവർ തന്നെ അവർ അവരുടെ പുസ്തകങ്ങളായിട്ട് തന്നെ അവർ എഴുതി പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്യുന്നത് പക്ഷെ എങ്കിലും എഴുത്ത് പേനയും പേപ്പറും ഉപയോഗിച്ചിട്ടുള്ള എഴുത്തിനോട് തന്നെയാണ് താല്പര്യം